ഇവിടെ പിന്നെ ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാല് വലിയ ഗുണമുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നുമില്ല ആശുപത്രികളെന്ന് പറഞ്ഞാല് ആശുപത്രികളിലൊന്നും ഒരു സൗകര്യവുമില്ല എവിടെ ചെന്നാലും പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കുകയില്ല ഞങ്ങള് ഗവൺമെൻ്റ് ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് മാനന്തവാടിയിൽ പക്ഷേ അതൊന്നും വലിയ ഇതില്ല നമ്മള് മരുന്നിനു പോയാൽ ഒരു മരുന്ന് പോലും അവിടെ നിന്ന് നമുക്ക് കിട്ടുകയില്ല അവര് ഇനിയിപ്പം മരുന്നിന് പോയാൽ തന്നെ അവര് പുറത്തേക്കാണ് എഴുതിത്തരുക ഇവിടെ ഒരു മരുന്നും ഇല്ല അവിടെ വലിയ ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജാണ് എന്ന പേര് മാത്രമേയുള്ളൂ പുറമേ പുറത്തുള്ളതിനെ പുറത്ത് ഇന്ത്യയില് പുറത്താണെങ്കില് എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ ആയിരിക്കും അവിടുത്തെ സൗകര്യമൊന്നും ഇവിടെയില്ല ഇവിടെ ഇല്ല കുറെ ആശുപത്രികള് അവിടെ ഇവിടെ ആയിട്ട് ക്ലിനിക്കുകളും അതും ഇതും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഒന്നും ഒരാവശ്യത്തിന് നമ്മള് ചെന്നാൽ ഒരു കാര്യങ്ങളും അവര് നടത്തി തരികയില്ല നല്ല ചികിത്സയ്ക്ക് ഡോക്ടർമാര് ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട് പക്ഷേ ഒന്നും ആ അറിവുമില്ല ബോധമില്ലാത്ത കുറെ ഡോക്ടർമാരാണ് അതുകൊണ്ട് ഞങ്ങള് ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കുവോ അങ്ങനെയൊക്കെയാണ് അല്ലാതെ അവർക്ക് പൈസ ഇല്ലാതെ ഒരു കാര്യമില്ല ഫീസ് കൊടുക്കാതെ ഡോക്ടറ് നോക്കുകയില്ല അങ്ങനൊക്കെയാണ് ഇവിടുത്തെ ഈ നമ്മളുടെ നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകത അവരവര് ഇതും കാര്യങ്ങളും നോക്കാത്ത മനുഷ്യന്മാരാണ് പിന്നേ കുട്ടികളായാലും വലിയ ആളായാലും പോയാല് അവർക്ക് നോക്കാൻ നേരമില്ല കുറേ അവര് ശമ്പളം വാങ്ങുന്നുണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുട്ടികള് ആരെങ്കിലും വന്നാൽ നോക്കിയാൽ നോക്കി അവര് വേറെ കൊണ്ടുപോയി കാണിച്ചുക്കൊള്ളാൻ ഒക്കെയാണ് പറയുക അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടർമാരും ഈ പിന്നെ ആരോഗ്യ പ്രവർത്തകരും ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളത്